ഹലോ ഗുഡ് മോണിങ് ഇത് ട്രാവൽ ഏജന്റല്ലേ

ഇപ്പോള് ഞങ്ങൾക്കു കുടുംബ സമേതമൊരു യാത്ര ചെയ്യാനുണ്ടായിരുന്നു ഒരു പത്തിരുപത്തിയഞ്ചു പേരുണ്ട് അപ്പോള് ഇരുപത്തിയഞ്ചാൾക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ആ ഓക്കെ അപ്പോള് ഇരുപത്തിയഞ്ചാള്ക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണു ചെയ്യേണ്ടത് ആ ഓക്കെ ഓക്കെ അപ്പോള് സെക്കൻഡ് ക്ലാസ് സീറ്റാണ് വേണ്ടത് ഇരുപത്തിയഞ്ചാള്ക്കും ഷുവറായിട്ടും സീറ്റ് സീറ്റുണ്ടാവുമല്ലോ അല്ലേ ഓക്കെ

അപ്പോള് എപ്പോഴാണു സമയം അവിടെ എത്തേണ്ടത്

ആ പതിനെട്ടാം തീയതി രാവിലെ ഓക്കെ ആ ആ പുലര്ച്ചെ ഓക്കെ ഓക്കെ ഓക്കെ സീറ്റും എല്ലാവര്ക്കും ഉറപ്പാണല്ലോ അല്ലേ കിടക്കാനൊക്കെയുള്ള സൗകര്യമുണ്ടല്ലോ അല്ലേ അതെയതെ അപ്പോള് നമ്മള്ക്കു കുറച്ചു കായുള്ളവരൊക്കെ ഉണ്ട് അപ്പോള് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് മറ്റു യാത്രക്കാരെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവരുത് അതുകൊണ്ടാണു നേരത്തെ ബുക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് യാത്രയ്ക്കുള്ള പൈസ ഇച്ചിരി കൂടുകയും ചെയ്യ തുകൊണ്ടു നല്ല ചെലവല്ലേ ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്കുള്ള സീറ്റ് ഉറപ്പല്ലേ ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച്